മാധ്യമങ്ങളെപ്പറ്റി പറഞ്ഞാൽ മാധ്യമങ്ങൾ ഇല്ലാത്ത കാര്യം പൊലിപ്പിച്ചു അതിനെ വേണ്ടാത്ത രീതിയിലെല്ലാം ആക്കി ഈ നാട് മുഴുവനും അങ്ങനെ ആക്കുന്ന ഒരു മാധ്യമ പ്രവർത്തകരാണ് ഈ ഇവിടെയുള്ളത് മാധ്യമക്കാരെക്കൊണ്ട് നമുക്ക് വലിയ താല്പര്യമൊന്നുമില്ല മാധ്യമം ചെയ്യുന്നത് മാധ്യമക്കാർ മറ്റുള്ളരെ ഉപദ്രവിക്കുക എന്നുള്ള പരിപാടി മാത്രമേ ഉള്ളൂ അങ്ങനെ ചെയ്തതു കൊണ്ട് നമുക്ക് അതുകൊണ്ട് ഒരു നേട്ടവും വരാൻ ഇല്ല മാധ്യമപ്രവർത്തകർ ചെയ്യേണ്ടതായ കാര്യങ്ങൾ മാധ്യമപ്രവർത്തകർ ഒരു ഒരു ന്യൂസ് കിട്ടിയാൽ മതി അവർ അതിനെ നൂറ് കാര്യമാക്കി പൊലിപ്പിച്ചു ഈ നാടും കോളിളക്കത്തിൽ സൃഷ്ടിക്കുന്ന ഒരു മാധ്യമ പ്രവർത്തകരാണ് ഉള്ളത് അതിൻ്റെ പേരിൽ മാധ്യമ പ്രവർത്തകർ പ്രവർത്തിക്കുന്നത് അനുസരിച്ചു ജനങ്ങൾക്ക് മാധ്യമ പ്രവർത്തനത്തോട് വലിയ താല്പര്യം ഒന്നും കാണിക്കാൻ പറ്റുന്നില്ല ഒരു ന്യൂസ് കിട്ടി അതിനെ വലുതാക്കി പെരുപ്പിച്ചു കൊണ്ടുവന്നു മറ്റുള്ള ജനങ്ങളുടെ ഇടയിൽ അതിനെ ഒരു മാധ്യമ പ്രവർത്തകൻ ചെയ്യുന്ന ഏറ്റവും വലിയ രോഗം അവർ ചെയ്യാത്ത തെറ്റിനെയായിരിക്കും അവർ അത് വലിച്ചു കൂട്ടി വലിയ തെറ്റായി എടുത്തൊക്കെ വച്ചു അങ്ങനെ എടുക്കുന്നത് അതുകൊണ്ട് നേരായ മാർഗ്ഗത്തിൽകൂടെ സംസാരിക്കുന്ന മാധ്യമങ്ങള ആരും തന്നെ ഇന്നില്ല എന്നാണ് എൻ്റെ പ്രതീക്ഷ ആ ആ രീതിയിൽ മാധ്യമ പ്രവർത്തകർ പ്രവർത്തിക്കാതിരിക്കുയാണങ്കിൽ മാധ്യമ പ്രവർത്തനത്തിന് തന്നെ ആയിരിക്കും നല്ലത് മാധ്യമം പ്രവർത്തനത്തെ പറ്റി പറയുകയാണെങ്കിൽ നമുക്കൊന്നും തന്നെ പറയാനായിട്ടില്ല മാധ്യമങ്ങൾ ചെയ്യുന്നത് വേണ്ടാത്ത രീതിയിലുള്ള സംസാരങ്ങളും മറ്റ് രീതിയിലുള്ള കാര്യങ്ങളൊക്കാണ് പറഞ്ഞു കൊണ്ടിരിക്കുന്നത് അതുകൊണ്ട് എത്രയും പെട്ടന്ന് മാധ്യമ പ്രവർത്തനം മര്യാദയ്ക്ക് നടത്തണം എന്നുള്ള ഒരു അപേക്ഷ മാത്രമാണ് ഞങ്ങൾക്ക് പറയാനുള്ളത് മാധ്യമ പ്രവർത്തകർ പറഞ്ഞില്ലെങ്കിൽ ഞങ്ങൾ അതിനെ പറ്റി പറയും പറഞ്ഞു കഴിഞ്ഞാൽ ഇവിടെ പ്രശ്നങ്ങൾ ഉണ്ടാകും ഒരു ന്യൂസ് കിട്ടാനായിട്ട് മാധ്യമപ്രർത്തകർ നോക്കിക്കൊണ്ടിരിക്കുകയാണ് ആ പ്രവർത്തനം അവരിൽ നിന്നും അവർ നല്ല സത്യസന്ധമായിട്ട് ഒരു പെരുമാറി പോട്ടെ അതിന് ഞങ്ങൾക്ക് യാതൊരു ബുദ്ധിമുട്ടും പ്രയാസവുമില്ല അവർ അതല്ലല്ലോ ചെയ്യുന്നത് അവർ എന്തു കിട്ടിയാലും അതിനെ പൊരുപ്പിച്ചു വലുതാക്കി വലിയ രീതിയിലാക്കി ആക്കി വിടും അതിങ്ങനെയുള്ള ഒരു സംവിധാനത്തിൽ നിന്നും ഞങ്ങൾക്ക് അത് കേൾക്കാനായിട്ട് താല്പര്യം കാണിക്കാത്തതു കൊണ്ട് മാധ്യമ പ്രവർത്തകരെ ഞങ്ങൾക്ക് ഇഷ്ടമില്ലാത്ത ഞങ്ങളുടെ മാധ്യമ പ്രവർത്തകർ എന്നു പറയുമ്പോൾ അവർ സത്യസന്ധമായിട്ട് പെരുമാറി എല്ലാ കാര്യത്തിലും ഞങ്ങളുടെ കൂടെ നിൽക്കണം എന്നുള്ള ഒറ്റ ഒരു വിശ്വാസത്തിലാണ് ഞങ്ങൾ ഇങ്ങനെ നിന്ന് പോകുന്നത് അതുകൊണ്ട് മാധ്യമ പ്രവർത്തരെ ഞങ്ങൾ കരുതുന്ന ഞങ്ങൾക്ക് അറിയാവുന്ന ദിവസം അ ചില പത്രങ്ങൾ വാർത്ത പ്രവർത്തനങ്ങൾ മാത്രം അവർ ചെയ്യട്ടെ അതിൽ അവർക്ക് അഭിമാനം കൊള്ളണം ഇത് അതല്ല ഒരു ന്യൂസ് കിട്ടിക്കഴിഞ്ഞാൽ അത് ഒൻപത് ന്യൂസാക്കി അതിനെ വിളിയിൽ ചാടിച്ചു അതിനെ വേണ്ടാത്ത രീതിയിലാക്കി എല്ലാവരെയും അവർ ഒറ്റി കൊ ക്കുന്ന രീതിയിൽ അവർ ആക്കി ഇവിടുന്നാണ് അവരുടെ ഏറ്റവും വലയ പ്രസ്താവന അതുകൊണ്ട് പറയാനുള്ളത് ഇത് മാത്രമേ ഉള്ളൂ മാധ്യമപ്രവർത്തകർ സത്യസന്ധമായ പാട്ട് ഞങ്ങള തരുമാനം അവർ ഇങ്ങനെയുള്ള കാര്യങ്ങൾ ഇടപടുന്നത് സത്യമായിട്ടുള്ള കാര്യം തിരിച്ചറിഞ്ഞു ആ രീതിയിൽ അവരുമായിട്ട് ബന്ധപ്പെട്ട് അവരുടെ കാര്യങ്ങളെല്ലാം വരുന്നതിന്ന് വേണ്ടിയിട്ടിക്കെ ഇരിക്കണം അതാണ് വേണ്ടത് ഒരു ആൾ അവരെ അടുത്ത് മരിച്ചെന്ന് പറഞ്ഞാൽ അവനെ കൊന്നു അവനെ എങ്ങനെ കൊന്നു അവൻ ഏത് രീതിയിലാണ് മരിച്ചത് അവൻ എങ്ങനെ ആരാണ് ചെയ്തത് എന്ന് അറിയുകയല്ല വേണ്ടത് അറിയാത്ത കാര്യങ്ങളെല്ലാം അവർ പറഞ്ഞുണ്ടാക്കി ശരിയാക്കുന്ന പരിപാടിയാണ്